ഹലോ ആ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ എനിക്ക് മറ്റന്നാളാണ് പോകേണ്ടത് അതായത് പ പതിനഞ്ചാം തിയതി മറ്റന്നാളല്ല പതിനഞ്ചാം തിയതിയാണ് എനിക്ക് പോകേണ്ടത് അപ്പം ഒരു രാവിലെ എട്ട് മണിക്കാണ് പോകേണ്ടത് ആ അതെ അതെ അതെ എനിക്കൊന്ന് എറണാകുളം വരെ പോകാനാണ് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കാണ് ആ കോഴിക്കോട് നമ്മളുടെ ഇവിടെ ഇല്ലേ അതായത് ബസ് സ്റ്റാൻഡ് അതിൻ്റെ അവിടെ നിന്നാൽ മതി ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ ആ അവിടുന്നാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ അവിടം വരെ ഒന്ന് വന്നിട്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എന്നെ എറണാകുളത്ത് കൊണ്ട് പോകുക തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവരിക ഒരു മൂന്ന് ദിവസം ഉണ്ടാകും കാരണം എനിക്ക് അവിടുത്തെ രണ്ട് ദിവസത്തെ പരിപാടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഒരു ഫങ്ങ്ഷൻ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ റിട്ടേൺ ഇവിടെ കൊണ്ടുവരികയും വേണം ആ ഓക്കെ ഓക്കെ എത്ര റേറ്റ് എത്രയാണ് എന്നൊക്കെ ഒന്ന് പറയുമോ അത്രയാകും അല്ലെ ആ ഓക്കെ ആ കുറയ്ക്കാൻ പറ്റുമോ ഇത്തിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കില് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനപ്പോൾ വേറെ രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ച് ഏജൻസീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് കുറച്ച് കുറച്ച് തരാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളുടെ റേറ്റും കൂടെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യും ആ എത്രയാവും ഏകദേശം അത്രയാവും അല്ലെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കില് ഒരു എട്ട് മണി ആവുമ്പത്തേക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ വന്നാൽ മതി ആ പതിനഞ്ചാം തിയതി ആ ഓക്കെ ആ എന്നാൽ ശരി എന്നാല്